എനിക്കിഷ്ടം പേപ്പറിലും പേനയിലും എഴുതാൻ തന്നെയാണ് കാരണം നമ്മുടെ ഹാൻഡ് റൈറ്റിങ് മെച്ചപ്പെടുത്തും അതുപോലെത്തന്നെ നമ്മൾക്ക് അത് എഴുതുമ്പോൾ നമുക്ക് നമുക്ക് അത് ബ്രൈനിൽ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ നമുക്കത് സ്റ്റോറാവും അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങൾ എഴുതുന്നതിലൂടെയുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെല്ലാവരും സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പോക്കെയാണ് കൂടുതലും യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നത് കാരണം അതാണല്ലോ സിംപിൾ എഴുതാനൊക്കെ എല്ലാവർക്കും മടിയാണ് ആരും അതിനനുസരിച്ച് നിൽക്കുന്നുമില്ല ആരും സമയം കളയാൻ വേണ്ടീട്ട് അപ്പോൾ എല്ലാവരും ടൈപ്പ് ചെയ്യാനും നമ്മുടെ ഇൻഫോർമേഷൻസ് ആണെങ്കിലും നമ്മുടെ മെസ്സേജസാണെങ്കിലും അത് മറ്റുള്ളവർക്ക് കാണിക്കാനൊക്കെ എല്ലാവരും ടൈപ്പിംഗ് ചെയ്യാൻ ലാപ്ടോപ്പ് മൊബൈലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അത് ഇവിടെ വന്ന ഈയിടെ ഈയൊരു കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ പേനയിൽ നിന്നുള്ള പേനയിൽനിന്നും ലാപ്ടോപ്പിൽനിന്നുള്ള മാറ്റം വളരെ പെട്ടന്നുതന്നെയായിരുന്നു പിന്നെ വല്യ ടൈമൊന്നും എടുത്തില്ല പക്ഷേ എനിക്കിഷ്ട്ടം പേ പേനയും പേപ്പറും ഉപയോഗിച്ചെഴുതാൻ തന്നെയാണ്